സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ആളുകളത്ര സഹായിക്കുന്ന മനസ്സ് മനസ്സിന് ഉടമകളാവില്ല അതുകൊണ്ടു തന്നെ ആരും സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങും ഇല്ല ബട്ട് ഈ ഡ്രൈവറ് എന്നെ കറക്റ്റ് സമയത്ത് എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അവിടെ എത്തിച്ചു ആള് എനിക്ക് ടാക്സി അറേഞ്ച് ചെയ്തു തന്നു അതേപോലെ തന്നെ ആൾ ആള് മിനിമം ചാർജ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തതുമുള്ളൂ അതുകൊണ്ടുതന്നെ കൂടുതലെനിക്ക് സഹായകരമായിട്ട് തോന്നി പിന്നെ പറയണത് എൻ്റെ പരീക്ഷക്ക് പരീക്ഷ കറക്റ്റ് ടൈമിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി അധികം ആൾക്കാരും ചെയ്യാത്തൊരു പ്രവർത്തിയാണ് അയാള് ചെയ്തത് സോ എനിക്ക് അയാളെന്നെ അയാളോട് എന്താ നന്ദി പറയാൻ മാത്രമേയുള്ളൂ